നമുക്കിവിടെ നടത്തുന്ന പരിപാടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ നമുക്കതിനൊന്നുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആൾക്കാരൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ഇപ്പോൾ ഐ എസ് എൽ ഒക്കെ നടക്കുന്ന ഒരു ടൈം ഗ്രൗണ്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ആളുണ്ടാവും ഇപ്പോൾ നമ്മളടുത്തിടെ രണ്ട് നടന്ന രണ്ട് മത്സരങ്ങളില് ഇപ്പോൾ ആദ്യം നമ്മുടെ ബാംഗ്ലൂരിന്റെ കൂടെ നടന്ന മത്സരം പിന്നെ രണ്ടാമത് നമ്മുടെ അതായത് ജംഷഡ്പൂരിന്റെ ഒപ്പം മത്സരം നടന്ന രണ്ടിലും വിജയിക്കുകയൊക്കെ ചെയ്തിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പോൾ അപ്പോൾ ആ ടൈമിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ആൾക്കാര് ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും ആൾക്കാർ നമ്മുടെ ആ സ്റ്റേഡിയത്തിൽ കൊള്ളും അത്രയും ആൾക്കാരെ നടക്കുന്നൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കേരളത്തില് ഇഷ്ടം പോലെ സ്ഥലങ്ങളിലൊക്കെ ഇണ്ടെന്ന് വേണെങ്കി പറയാൻ പറ്റും പിന്നെ നമ്മുടെ ഇന്ത്യേന്റെ മത്സരവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാര് ഉണ്ടാവും കാരണമെന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ത്യൻ കളിയെന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയും പാക്കിസ്ഥാനുമാണ് മെയിനായിട്ടുള്ളൊരു കളീൻ്റെ മെയിൻ ആൾക്കാര് ആ സമയത്താണ് കൂടുതലായിട്ടും ആൾക്കാര് വരിക ഇപ്പോൾ കളികാണാൻ ഒക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഐ പി എൽ നടക്കുന്ന ഒരു ടൈമാണെങ്കിൽ നമുക്ക് ഇവിടെ ഐ പി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിനായിട്ട് നമുക്ക് ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഐ പി എൽ നടക്കുന്നത് മെയിനായിട്ട് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽനിന്നൊക്കെ പറഞ്ഞിട്ട് ടീമും കാര്യങ്ങളൊക്കെയുണ്ട് മുംബൈ ഉണ്ട് അങ്ങനെ അവിടെയൊക്കെയാണ് കൂടുതലായിട്ടും കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്